പരമ്പരാഗത രൂപമായ പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതാനാണോ അതോ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ മൊബൈലിൽ ടൈപ്പ് ചെയ്യാനാണോ എനിക്കിഷ്ടമെന്ന് എന്നോടു ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും പറയുക എനിക്കു പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതാനാണ് അതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നമ്മൾ പേനയും ലാപ്ടോപ്പും ഉപയോഗിച്ചെഴുതുന്ന സമയത്ത് നമുക്ക് എന്തു ചെയ്യാൻ കഴിയില്ലാ നമുക്ക് നമ്മുടെ ചിന്തകളെ ഭാഷയിലൂടെ അതേപടി പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല നാം ലാപ്ടോപ്പിലെഴുതുന്ന സമയത്തു നമ്മൾ കുറച്ച് എടങ്ങേറായി എഴുതുന്ന സമയ ഒരു ഗതിയാണ് നമുക്കു കാണുവാൻ സാധിക്കുക ലാപ്ടോപ്പിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈപ്പിംഗ് അറിയേണ്ടതുണ്ട് അതേപോലെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്നത് അൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ നമ്മുടെ ചിന്തകളെ അതേപടി അവരിലേക്ക് എത്തിക്കാൻ നാം നമുക്ക് ഏറ്റവും സുഗമമായ മാധ്യമമാണു നാം ഉപയോഗിക്കേണ്ടത് പേനയും പേപ്പറുമാണ് അവനു വളരെ സൗകര്യമായി അവൻ്റെ ചിന്തകളെ കൈമാറുവാൻ സഹായിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവൻ പേനയും പേപ്പറും തന്നെ ഉപയോഗിക്കണം എന്നെപ്പോലെ ഇനിയവനു ടൈപ്പിംഗ് പേനയും പേപ്പറും ഉപയോഗിക്കുന്ന അതേ ലാഘവത്തിൽ അവന് ടൈപ്പിംഗ് ചെയ്യാൻ കിയയും അതിൽ അല്ലെങ്കിൽ അതിലേറെ ടൈപ്പിങ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഫോണിലാവട്ടെ ലാപ്ടോപ്പിലാവട്ടെ ടൈപ്പിംഗ് ചെയ്യാൻ കഴിയുന്നയാളാണ് അവന് അവൻ്റെ ആശയ ആശയങ്ങളെ ഭാഷയിലേക്കു പരിവർത്തിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും അവൻ നേരിടുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ടൈപ്പിംഗ് ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് എന്തെന്നാൽ എനിക്ക് പേനയും പേപ്പറും ഉപയോഗിച്ചാല് എഴുതുന്ന ആ ഫീൽ എനിക്കു ലഭിക്കുകയുള്ളൂ മറിച്ച് ഒരു ലാപ്ടോപ്പൊക്കെ എടുത്തിയിരിക്കയാണെങ്കില് ഞാന് പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതുന്നതിൻ്റെ പകുതി പോയിട്ട് കാൽ ശതമാനം പോലും ഞാൻ എഴുതിത്തീരില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോള് ടൈപ്പിംഗ് ചെയ്യുന്നതിനെക്കാൾ കൂടുതൽ എനിക്ക് മൊത്തത്തില് ഒരു അധിക ആളുകളും എന്നെ പോലെ ആയിരിക്കുമെന്നാണു ഞാൻ കരുതുന്നത് ടൈപ്പിംഗ് ബുദ്ധിമുട്ടായിരിക്കും പേനയും പേപ്പറുമായിരിക്കും അവര് ചെറുപ്പത്തിലേ ശീലിച്ച പാഠമാണ് ഈ പേനയും പേപ്പറും അപ്പോള് അതവർക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് അവരതു മനസ്സിലാക്കിക്കഴിഞ്ഞിരിക്കും അപ്പോള് പേനയും പേപ്പറും ആയിരിക്കും ഒരു ഭൂരിപക്ഷം ജനങ്ങളുടെയും പ്രിഫറൻസ് എന്നാണു ഞാൻ മനസ്സിലാക്കുന്നത്